വെള്ളം നമുക്ക് കുടിക്കാന് വെള്ളമില്ല നമുക്ക് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് നമുക്ക് തോട്ടീ വെള്ളമുണ്ടേലും മനുഷ്യർ എന്താപറയുക മൃഗങ്ങളെ എല്ലാത്തിനെയും കൊത്ത് ചത്തിട്ടങ്ങ് ഒഴിക്കിവിടുക ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും തോട്ടിൽ കിടന്ന് ഒഴുകി നടക്കയാണ് അത് മറ്റുള്ളവര്ക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമുക്കൊരു കുടിക്കാനായിട്ടാ വെള്ളം എടുക്കാൻ ചെല്ലുമ്പം അതിനകത്ത് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് കുടിക്കാനും തോന്നത്തില്ല നമുക്കെടുക്കാനും തോന്നത്തില്ല ഒന്നും തോന്നത്തില്ല വെള്ളത്തിനെ കണ്ടാൽ അത് നമ്മളത് പറയുമ്പം അവര്ക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ അത് നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കേര ഇപ്പം മഴവെള്ളം ഇപ്പം ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോലൊയുള്ള പാവങ്ങൾക്കൊക്കെ മഴവെള്ള സംഭരണി പോലെ ഉണ്ടാക്കുന്നുണ്ട് അതിനകത്താണ് നമ്മളക്കെ മഴവെള്ളം പിടിച്ചുവെക്കുന്നത് പിന്നെ ചെറിയ ചെറിയ ജാറുകൾ അതൊക്കെ നമുക്ക് വെള്ളത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ മഴവെള്ളം മഴവെള്ളം നമക്ക് കൂടുതലുപയോഗിക്കാന് മഴവെള്ളം പിടിച്ച് വെക്കാമെങ്കിൽ നമുക്കൊരു വലിയ ഒരു ഇത് ജാറോ വലിയ ഒരു ഇത് മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടാക്കാമെങ്കിൽ കുറെ നാളത്തേക്ക് നമുക്ക് വെള്ളത്തിന് ഉപയോഗിക്കാം ഉപയോഗിക്കാം